ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും പലപ്പോഴും അത് വളരെയധികം വ്യത്യസ്തമായിട്ട് ഉള്ള സ്ഥല കാര്യങ്ങളാണ് കാരണം ഇന്ത്യയിൽ പല സ്ഥലത്തും പല സംസ്കാരങ്ങളാണ് ഇന്ത്യയിലെ ഇരുപത്തെട്ടു സംസ്ഥാനവും ഇപ്പോൾ ഇരുപത്തെട്ടു അതിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഉണ്ട് അപ്പം ഓരോ സംസ്ഥാനത്തും ഓരോ ഭാക്ഷയും ഭാഷയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനനുസരിച്ച് സംസ്കാരത്തിലും വസ്ത്രധാരണം എന്നിവയിലും എല്ലാം മൊത്തത്തിൽ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇപ്പം പാശ്ചാത്യ ലോകത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സംസ്കാരം ഇന്ത്യയിലെ യുവത്വ യുവാക്കളും യുവജനങ്ങള് പലപ്പോഴും അതിന് അത് പിന്തുടരുന്നുണ്ട് അത് ഉദാഹരണത്തിന് ജീവിത സാഹചര്യത്തില് ജീവിത ജീവിതശൈലിയായാലും പിന്നെ അതുപോലെ തന്നെ വസ്ത്രധാരണങ്ങൾ ഇതെല്ലാം പലപ്പോഴും പാശ്ചാത്യ ശൈലി നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പിന്നെ പണ്ട് പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ആരും അങ്ങനെ പിന്തുണയ്ക്കുന്നതായി കാണുന്നില്ല പണ്ട ത്തെ കാലത്ത് രാജ വംശങ്ങളായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് അത് ഇപ്പം മാറി ഇപ്പം ജനാധിപത്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത് അതുപോലെ തന്നെ സംസ്കാരികമായി ചി സാംസ്കാരികപരമായി പറയുകയാണെങ്കിൽ അതിഥികളെ ദൈവത്തെപ്പോലെ സ്വീകരിച്ചിരുന്ന ഒരു നാടാണ് ഇന്ത്യ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ മറ്റുള്ളവര് വന്ന് ധൂർത്തടിച്ച് പോയതും അത് നമ്മുടെ വന്ന് നമ്മളെ അടിമകളാക്കി വെച്ചിരുന്നതും അതൊക്ക് അതൊക്കെ ഒരു കാരണമാണ് പിന്നെ അതുപോലെതന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജനാധിപത്യം പല പാശ്ചാത്യ ശക്തികളെയും അനുകരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതുപോലെതന്നെ ഒരു സൈഡിലെ ജനാധി ജന ജനാധിപത്യ പാർട്ടികൾ ഇന്ത്യയെ പിന്നോട്ട് നയിക്കും അതായത് അവരുടെ പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയം ഇന്ത്യൻ ജനതയുടെ മേലെ അടിച്ചമർത്താനും ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം ഇന്ത്യൻ സംസ്കാരത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയാണ്